ഹലോ ഇത് തോമസാണ് ഞാൻ അവിടെ നിന്നൊരു ഗ്യാസ് എടുത്തായിരുന്നു അപ്പം അതിന്റെ കണക്റ്റർ അത് ലീക്ക് ആകുന്നുണ്ട് അതിപ്പം എങ്ങനാ കസ്റ്റമറുടെ നമ്പർ രണ്ട് രണ്ട് നാല് നാല് ഇതിപ്പം ഞാൻ കണക്റ്റ് ചെയ്തപ്പം അത് ലീക്ക് ആകുന്നുണ്ട് അതെങ്ങനെയാണ് ആ ഓക്കെ അത് നന്നാ ഓക്കെ അപ്പം ഓ ഇപ്പം ചെറുതായിട്ടാണ് ലീക്കാകുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും പ്രശ്നമാകുമോ

അല്ല അല്ല പുറത്താണ്

ആ ആ ഇല്ലില്ല കുഴപ്പമില്ല ഇനി വെള്ളിയാഴ്ച്ച വെള്ളിയാഴ്ച്ചയുള്ളു അല്ലാണ്ട് നേരത്തെയൊന്നും ബൈക്കിൽ കൊണ്ടു വരാൻ അങ്ങനെയൊന്നും പറ്റില്ല ആ ഇത് തുടിയങ്കോണമാണ് ആ അയ്യോ എങ്ങനെയെങ്കിലും ആ പൊട്ടിത്തെറിക്കുമോ അതെന്നാ തീയെങ്ങാനും വന്നു കഴിഞ്ഞാൽ ആ ഹാ ഹാ എങ്ങനെയെങ്കിലുമൊന്നു നോക്കാമോ ഒന്ന് ഇതത്യാവശ്യമാണ് ഗ്യാസൊക്കെ കത്തിക്കാൻ ഉള്ളവർ അതാണ് നല്ലത് കാരണം എങ്ങാനും പൊട്ടിത്തെറിച്ചാൽ അങ്ങനെയെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മ് ഓക്കെ ഓക്കെ എങ്ങനെയെങ്കിലും നോക്കാമോ ആ അതെ ഓക്കെ ഓക്കെ പിന്നെ ആ ഓക്കെ